രാജ്യത്ത് ലഭ്യമായിരിക്കുന്ന ആശുപത്രികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ഇപ്പോൾ ഒ കേരളം എന്നു പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആശുപത്രികൾ ഉണ്ടെങ്കിൽ തന്നെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ആണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് ഈ സൗകര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ജനങ്ങൾക്ക് കുറച്ചുംകൂടെ ആശ്വാസപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് ഈ മെഡിക്കൽ സേവനങ്ങൾ കുറച്ചുംകൂടെ ഫലപ്രദമായിട്ട് പോവുകയുള്ളൂ പൊതുവായിട്ട് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ നിലവിൽ ഇപ്പം കുറേയധികം മെഡിക്കൽ കേന്ദ്രങ്ങൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ കേന്ദ്രങ്ങളൊന്നും ഫലപ്രദമായിട്ടുള്ള രീതികളിൽ അല്ല പ്രവർത്തിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള മെഡിക്കൽ സേവനങ്ങൾ തികച്ചും അപര്യാപ്തമാണ് കാരണം ഈ ചെറിയ രോഗങ്ങൾക്ക് പോലും അല്ലെങ്കിൽ വലിയ രോഗങ്ങൾക്ക് ചെലുത്തുന്ന അധികം പണം മറ്റ് കാര്യങ്ങളൊക്കെ ഈ രോഗങ്ങൾക്ക് വരുന്നുണ്ട് അതുകൊണ്ടു തന്നെ ഈ മെഡിക്കൽ സേവനങ്ങൾ തികച്ചും എന്താണ് രാജ്യത്ത് ഫലപ്രദമായിട്ടുള്ള രീതികളിലല്ല പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ചിലവ് മുമ്പത്തേതിനെക്കാളും വളരെയധികം കൂടുതലാണ് കാരണം ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അധികമായിട്ടുള്ള ചിലവുകളും മറ്റു കാര്യങ്ങളും ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ടു തന്നെ ഈ ചിലവ് താങ്ങുമെന്ന് പറയുന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാനുള്ളത് പിന്നീട് വരികയാണെങ്കിൽ കോവിഡ് മഹാമാരിയുടെ ഒരു ദുരന്ത കാലഘട്ടത്തിലേക്ക് വരികയാണങ്കിൽ കുറേയധികം അനുഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ ധാരാളമായിട്ട് അവർ കഷ്ടതകളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചു മെഡിക്കൽ സേവനങ്ങൾ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല സാധാരണക്കാർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങുന്നതിനുള്ള വക പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മെഡിക്കൽ സേവനങ്ങൾ കൊടുക്കേണ്ട കേന്ദ്രങ്ങളൊന്നും ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം ആ രീതിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ തന്നെ ധാരാളമായിട്ട് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പോകുവാനും അതിൽ അവർക്ക് ഒത്തിരി സേവനങ്ങൾ ലഭിക്കുന്നതിനും കാരണമാകും പക്ഷേ ആ ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ടു തന്നെയാണ് ഒരു അവസ്ഥ പിന്നെ പൊതുവായിട്ട് ഈ കോവിഡ് മഹാ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വളരെ ഒരു ദുരിതം നിറഞ്ഞ ഒരു അവസ്ഥയിൽ അവസ്ഥയായിരുന്നു പ്രധാനമായിട്ടും പറയാവുന്ന ഒരവസ്ഥ അപ്പം ആ രീതിയായിരുന്നു അതിൻ്റെ കാര്യങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് മെച്ചപ്പെട്ട കുറച്ചും കൂടെ ഒരു ദുരിത ഗതിയിലേക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടം ഒന്നു പതുക്കെ നീങ്ങി വരുന്നതോടു കൂടിയിട്ടാണ് ആ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്നു പോയത് ഇന്ന് എൻ്റെ പ്രദേശത്ത് ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പത്തേതിനെക്കാളും അപേക്ഷിച്ച് കുറച്ചുംകൂടെ കൂടി വരുന്നുണ്ട് ഗവൺമെന്റുകൾ ആദ്യ കാലഘട്ടത്തിൽ ഉള്ളതിനെക്കാളും കൂടുതലായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ മെച്ചത്തോട് കൂടി തന്നെ സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പല തരത്തിലുള്ള മരുന്നുകളും മറ്റ് സേവനങ്ങളും ഒന്നും ഇവിടെ ലഭിക്കുന്നില്ല ആ കാര്യങ്ങൾ കുറച്ചുംകൂടെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കൊണ്ടു വരികയാണെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് മുന്നേറുന്നതിനും കുറേ തരത്തിലുള്ള പരിരക്ഷകൾ ലഭ്യമാക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു പ്രയോജനാൽമകമായിട്ട് ഒരു കാര്യങ്ങളിലേക്ക് പോകും അത് കുറച്ചുംകൂടെ വികസനത്തിൻ്റെ മട്ടിലേക്ക് വരുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ അത് പ്രാവർത്തികമായിട്ടുള്ള രീതികളിലേക്ക് പോവുള്ളൂ ഇതാണ് ഈയൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായവും പിന്നെ സമൂഹത്തിൽ നേരിട്ട് ഒരു നിഗമനം എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്